പരിശീലന പ്രക്രിയയില് എന്തെങ്കിലും വലിയ പരിക്കുകളോ പരിമിതികളോ നേരിടേണ്ടി ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട് അതെന്ന് പറഞ്ഞാല് ഒരു ഡാൻസിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആയിനു പോയപ്പോൾ ചെറുതായിട്ടൊന്നു സ്റ്റേജിലു സ്ലിപ്പ് ആയി അങ്ങനെ വീണു കാലിന്റെ കാലിന്റെ ഒരു എല്ല് പൊട്ടി അങ്ങനെ അങ്ങനെ ഒരു പരിക്കു പറ്റിയിരുന്നു പിന്നെ രണ്ട് രണ്ടും രണ്ടാഴ്ചത്തോളം നടക്കാനോ നടക്കാനോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റിയിരുന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെ കുറെ ദിവസമങ്ങനെ കാലു കെട്ടി റസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ആണ് പിന്നെ മാറിയതൊക്കെ പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പിന്നെ ഒന്നും കൂടെ എക്സറേ ഒക്കെ എടുത്തു ഒന്നും കൂടെ കാണിച്ചു അങ്ങനെ കാലിനു കുഴപ്പം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മെഡിസിൻ ഒക്കെ കഴിച്ചായിരുന്നു അതിൻ്റെ പേരില് ഓ രണ്ടാഴ്ച ആണ് അതിനു വേണ്ടി കിടന്നത് രണ്ടാഴ്ച ആയപ്പോൾ പിന്നെ കെട്ടഴിച്ചു ഒന്നും കൂടെ കെട്ടി തന്നു റെഡി ആയിട്ടില്ല കുറച്ചും കൂടെ റെഡി ആവാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടു പിന്നേം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാലിൻ്റെ കെട്ട് അഴിച്ചത് എന്നിട്ടു മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആണ് മെഡിസിനൊക്കെ കഴിയുന്നത് വരെ ഒരാഴ്ചത്തേക്ക് പിന്നേം കൂട്ടി എഴുതി തന്നു അങ്ങനെ ആ മെഡിസിനൊക്കെ കഴിച്ചതിനു ശേഷമാണ് ഇതൊക്കെ ഒന്നു മാറിക്കിട്ടി ഇപ്പം റെഡിയായി ഒന്നും കൂടെ ഡാൻസ് ഒക്കെ കളി കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്